ഞാൻ പുതിയ സ്മാർട്ട് ഫോൺ ഓൺ ഞാൻ ഓൺലൈനിൽ കൂടൊരു പുതിയ സ്മാർട്ട് ഫോൺ ഓഡർ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പം അതിനെ പറ്റി എനിക്ക് ഒന്ന് അറിയാനാഗ്രഹമുണ്ടായിരുന്നു ആ അപ്പം ഞാൻ കൊറിയർ ബോയീനെ ഞാൻ കൊറിയർ കൊറിയർ സേവനം ചെയ്യുന്ന ആളെ വിളിച്ച് ചോദിക്ക് ഹലോ എനിക്കിന്ന് മാനസി എനിക്കൊന്നു പറഞ്ഞു തരാമോ എൻ്റെ സ്മാ എൻ്റെ എൻ്റെ ഓൺലൈനിൽ കൂടി അപ്ലൈ കൊടുത്ത സ്മാർട്ട് ഫോൺ എനിക്കെന്നു കിട്ടുമെന്നൊന്നു പറയാമോ അതിൻ്റെ ഡീറ്റെയിൽസും വിവരങ്ങളും പറയുകയായിരുന്നെങ്കിൽ വളരെ ഉപകാരമായിരുന്നേനെ കാരണം ആ കുറേ ദിവസമായി ഞാനതിനു വേണ്ടി നിൽക്കുന്നു അപ്പം അതിനെത്ര ദിവസം ഇനി സമയമെടു എത്ര എത്ര സമയമെടുക്കും അതിനി വരാൻ വേണ്ടി കുറേ സമയമെടുക്കുമോ ഇനി ഇപ്പം അതെന്നു വരും അത് എനിക്കെൻ്റെ കയ്യിലേക്കതെന്നു കിട്ടും എനിക്കെന്ന് പ പി പിന്നതിൻ്റെ ഒരു വിശദ വിവരണം കിട്ടുകയായിരുന്നെങ്കിൽ വളരെ ഉപകാരമായിരുന്നേനെ കാരണം അതിനനുസരിച്ച് എനിക്ക് എൻ്റെ സ്മാർട്ട് ഫോണൊന്ന് അപ്ഡേറ്റ് ചെയ്യുകയും അതിനു വേണ്ടി ആ കുറച്ച് കാര്യങ്ങളുണ്ട് കാരണം എനിക്കിപ്പം ഓൺലൈൻ ക്ലാസസ് എടുക്കാനുണ്ടപ്പോൾ ആ ഓൺലൈൻ ക്ലാസസ്സിൽ കൂടി എനിക്കത് കിട്ടുകയായിരുന്നെങ്കിൽ പെട്ടെന്നു തന്നെനിക്കാ ക്ലാസ്സൊക്കെ എടുക്കാൻ പറ്റുമായിരുന്നേനെ